നമ്മളെ സ്കൂളുകളില് കംപ്യൂട്ടറിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോന്ന് വച്ചാല് കുറവാണ് ഞാന് ഒരഞ്ചാം ക്ലാസ് മുതല് കമ്പ്യൂട്ടർ പഠിച്ചൊരാളാണ് കമ്പ്യൂട്ടറ് ണറഞ്ഞാല് കമ്പ്യൂട്ടറിനോട് അതിയായ താൽപ്പര്യമുള്ള ഒരാളാണ് ആ ഒരു മേഖലയെക്കുറിച്ച് അതാണ് ഭാവിയെന്നൊക്കെ എനിക്ക് ഒരു ഇതുണ്ടായിനു അപ്പോള് അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റുള്ളതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറില് അഞ്ചാം ക്ലാസ് മുതല് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കൂടെയായിരുന്നു അഞ്ച് മുതല് ഏഴ് വരെ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല നമ്മളെ ഒന്ന് ബേസിക്കൊന്നായിട്ട് നമുക്ക് കിട്ടുന്നില്ല കമ്പ്യൂട്ടറിനെ നമ്മളൊരു അന്നെന്തോ ഒര് അമ്പത് രൂപയോ നൂറ് രൂപയോ ഒക്കെ ഫീസ് ഒരു വർഷത്തിന് അപ്പോള് അതു കൊടുക്കും നമ്മള്ക്കൊരു ഒരു ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പിരീഡുണ്ടാവും ആ ഒരു ടൈമില് ഒരര മണിക്കൂര് നമ്മള് എല്ലാവരും കൂടി പോയിട്ട് ആ കോഴ്സിനെത്ര ആൾക്കാരുണ്ടോ ആ എല്ലാവർക്കും ആ ഒരു ഒരു മണിക്കൂറിൻ്റെയുള്ളില് അതൊക്കെ ചെയ്ത് ക്ലീയറാക്കണം അപ്പോള് കാര്യമായിട്ട് ഗെയിം കളിക്കാനും അല്ലെങ്കില് പെയ്ന്റിങ്ങോ ഡ്രോയിങ്ങോ നമ്മള് വേറൊന്നും പഠിപ്പിക്കുന്നില്ല ആ ടൈമില് കുറച്ചു കൂടെയൊക്കെ ഒന്നും കൂടെ വിപുലമായിട്ട് ഒരു അവറിന്റെയൊരു ക്ലാസ്സൊക്കെ എടുത്താല് ശരിക്കും കംപ്യൂട്ടറിനെക്കുറി കുറിച്ച് ഈ എൽ പി യു പി ഘട്ടത്തില്തന്നെ ശരിക്ക് പഠിച്ച് കൊടുത്താല് ഹൈ സ്കൂളൊക്കെ ആവുമ്പോഴത്തേന് നന്നായി ബേസാകും ഈ എന്താ പറയുക അങ്ങനെ ശരിക്കങ്ങനെ പോരണമെന്നാണ് എൻ്റൊരു അഭിപ്രായം അതേപോലെ പിന്നെ ഹൈ സ്കൂളില് വന്നാല് കംപ്യൂട്ടര് ഐ ടി പറഞ്ഞിട്ടൊരു വിഷയമുണ്ട് എസ് എസ് എൽ സിലാണ് എക്സാമൊക്കെ ശരിക്കൊന്ന് നടക്കുന്നത് ഐ ടി എന്ന് പറഞ്ഞിട്ട് ഒട്ടു മിക്ക ആൾക്കാർക്കും എ പ്ലസ് ആകും അത് അത്ര ഒരു നിലവാരമില്ലാത്തൊരു സംഭവമാണ് ഇതിൻ്റൊരു ചെറിയൊരു ബേസ് മോഡലെന്ന് പറയാം എന്താണു പറയുക പിന്നെ കംപ്യൂട്ടറിനെക്കുറിച്ച് അത് പിന്നങ്ങോട്ട് ബി എസ് സി ഐ ടി ഡിഗ്രിക്ക് പറയുകയാണെങ്കിൽ ബി എസ് സി ഐ ടിയുണ്ട് പ്ലസ് ടുവിന് ഐ ടിയുണ്ട് വിഷയമുണ്ട് സബ്ജക്റ്റുണ്ട് എന്തണ് പറയുക ഈ ഡിഗ്രിക്ക് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞൊരു ഇതന്നെയുണ്ട് വിഷയം തന്നെയുണ്ട് അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോകാം പിന്നെ കംപ്യൂട്ടറിനെക്കുറിച്ച് പഠിക്കാനതുതന്നെയേ ഉള്ളൂ പിന്നല്ലാതെ നമ്മള് ഒരു സെപ്പറേറ്റ് ഒരിതില് കാറ്റഗറി തരം തിരിച്ചിട്ടാണ് നമ്മള് കംപ്യൂട്ടറിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്